ആ ഹലോ സിജു ഡോക്ടറല്ലേ ആ സാറേ ഇത് ഞാനവിടെ ട്രീറ്റ്മെൻ്റിൽ ഉള്ള ഒരു പേഷ്യൻറ്റാണെ എന്നെ രണ്ട് രണ്ട് മാസം മുമ്പ് ഞാൻ ആ എന്തോ പേര് ജോയി എന്നാണ് ജോയി ജോയി എന്നാണ് ആണ് സാറേ ഞാൻ പിന്നെ വിളിച്ചത് എനിക്ക് അത് ഈയിടെയായിട്ട് എന്നാ പല്ലിന് ഭയങ്കരമായിട്ടുള്ള വേദനയായി ഞാനൊരു രണ്ട് മാസം മുമ്പ് ക്യാപ്പ് റൂട്ട് കനാല് ചെയ്ത് ക്യാപ്പിട്ടതാണ് അതെ ശരി ഞാൻ പല്ലിന് ഭയങ്കര ആയിട്ടുള്ള വേദനയാ അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് ഒന്നും ഇപ്പം അത് കഴിക്കാനും പറ്റുന്നില്ല ഒരു നിവർത്തിയില്ല എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാ വിളിച്ചത് അതെ അതെ ആ ആ ഭാഗത്താ വേദന ആ ഭാഗത്താ വേദന ആ അതെ അതെ അതെ ആ മോണയിൽ ആ ആ ഭാഗത്തുള്ള മോണയിലാ മോണയുടെ ആ അത് നീര് വന്നിരിക്കുകയാ നീര് വന്ന് ഇരിക്കുകയാണേ അത് തൊടത്തില്ല അത് തൊടത്തില്ല എനിക്ക്

ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ആ മ്

മ് മ് മ് ഉവ്വ അവിടെ അവിടെ അതിനുള്ള സൗകര്യം ഉണ്ടോ സാർ അത്ര അവിടെ അതിനുള്ള അതിനുള്ള ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ

ആ ആയിക്കോട്ടെ ഞാൻ തിങ്കളാഴ്ച വിളിക്കാം തിങ്കളാഴ്ച വിളിച്ചിട്ട് ഞാൻ വരാം തിങ്കളാഴ്ച വിളിച്ചിട്ട് ഞാൻ വരാം ആ ഉവ്വ് ആയിക്കോട്ടെ

ഓക്കെ ഓക്കെ ഇനി ഇപ്പം ഇത് ഭയങ്കര വേദനയുണ്ട് ഇതെന്നാ ഡോക്ടറേ ഇപ്പം അതിനെന്താ നമുക്ക് ഒരു എന്തെങ്കിലും മരുന്നോ എന്തെങ്കിലും ഒക്കെ വേദന കുറയാൻ എന്തെങ്കിലും മരുന്നുണ്ടോ ഇപ്പം ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് എന്ന് പറഞ്ഞാൽ വേദന സഹിക്കാൻ പറ്റുന്നില്ലേ വേദന സഹിക്കാൻ പറ്റുന്നില്ല ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഡോക്ടർ

ആയിക്കോട്ടെ ആയിക്കോട്ടെ ആക്കെ ഓക്കെ ഓക്കെ സാറെ താങ്ക് യൂ താങ്ക് യൂ